ട്രാവലല്ലേ ട്രാവൽ പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് അനുഭവിക്കേണ്ടിവരും ഇല്ലെങ്കിൽ അത് നമ്മൾ തരണം ചെയ്തിട്ട് പോകേണ്ടി വരും പക്ഷെ എന്നാലും ഒരു ട്രാവൽ ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും പറഞ്ഞാൽ അതു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം ശരിക്കും നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം എന്നതാണ് ഇതിൻ്റെയൊരു പ്രധാനമായിട്ടുമുള്ളൊരു കാര്യം പിന്നെയെന്നു വെച്ചാൽ ട്രാവൽ പോകുന്ന സമയത്ത് അധികവും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്നു വെച്ചാൽ ടൈം റ്റു ടൈം നമ്മൾക്ക് യാത്രയ്ക്ക് പോകാനുള്ള ഒരു വണ്ടീൻ്റെ സൗകര്യം നമ്മൾക്കു കിട്ടുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഒരു അറിയാവുന്ന സ്ഥലം ആണെങ്കിൽ നമ്മൾക്ക് അറിയാം ആ സ്ഥലത്തേക്ക് ഏതു സമയത്ത് എത്ര മണിക്കാണ് പുറപ്പെടേണ്ടത് ഏതു സമയത്തിലാണ് ആ സ്ഥലത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്താൻ പറ്റും എന്നതാണ് അതിലൊരു കാര്യം പക്ഷെ അറിയാത്തൊരു സ്ഥലത്തേക്ക് അതായത് നമ്മൾക്കൊരു കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇണ്ടാക്കിയൊരു സ്ഥലം ഹൈപ്പ് ഇണ്ടാക്കിയ സ്ഥലം നമ്മൾക്ക് ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് എത്താൻ പറ്റുമോ എന്നതാണ് അതിൻ്റെയൊരു പ്രധാന കാര്യം അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ടൈം റ്റു ടൈം ട്രാവലിനു വേണ്ടിയ വണ്ടീൻ്റെ സൗകര്യം കിട്ടുമോ ഇല്ലയോ അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം പിന്നെ ഒരു പ്രശ്നമെന്നു വെച്ചാൽ ആ എക്സ്പെൻസസ്സാണ് പ്രധാനമായിട്ട് ആ എക്സ്പെൻസസ് എന്നു വെച്ചാൽ കയ്യിൽ പൈസ ഉണ്ടോ ആ പൈസ കൊണ്ട് നമ്മൾക്ക് വേണ്ടിയ സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നതാണ് അതിൻ്റെയൊരു പ്രധാന കാര്യം പക്ഷെ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്കു തോന്നും അപ്പോൾ അതെങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്നു വെച്ചാൽ ഞാൻ ട്രാവൽ പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് എനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ കരുതി വെക്കും എന്നിട്ടാണ് ട്രാവെല്ലിങ്ങിനു പോകുന്നത് ആ സമയത്തും പല പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കാറുണ്ട് പ്രധാനമായിട്ട് പോകുന്ന സ്ഥലത്തിലേക്കുള്ള ഒരു ഇടുങ്ങിയ ഒ ഇടുങ്ങിയ വഴിയാണെങ്കിൽ അറിയാത്തൊരു സ്ഥലമാണെങ്കിൽ ചെറുതായിട്ട് മനസ്സിലൊരു പേടി വരും പക്ഷെ അതു തരണം പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും ഒരാളൊരു കൂട്ടുകാരായിട്ടോ ഇല്ലെങ്കിൽ പോകുന്ന ഒരു സ്ഥലത്തേക്ക് ആ ഒരു അടുത്തുള്ള ആൾക്കാരോട് ശരിയായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെടുകയും പിന്നെ അവരെ ഒരു കൂട്ടാളിയാക്കി അടുത്തുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അറിയാവുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എന്നതാണ് ഞാൻ ചെയ്യുന്ന പ്രധാന കാര്യം പിന്നെ എക്സ്പെൻസസ്സ് പ്രധാനമായിട്ട് പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു ബജറ്റ് പ്ലാൻ ചെയ്യും പക്ഷെ അതു കൃത്യമായിട്ട് ഇംപ്ലിമെൻറ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെയൊരു പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷെ അതു ചെയ്യാൻ ചെയ്യണമെങ്കിൽ പല സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം എന്നതാണ് അതായത് ഇപ്പോൾ ഒരു ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ കൈയ്യിൽ ഇത്ര പൈസയുണ്ടാകും പക്ഷെ ആ പൈസയെല്ലാം ആ ട്രവലിൻ്റെ ഇടയ്ക്കു തന്നെ ഇടയ്ക്കു തന്നെ നിന്നു പോകും എന്ന സംഭവത്തിൽ നമ്മളുടെ ആ പ്ലാനിംഗ് കൈയ്യിൽ നിന്നു പാളിപ്പോകും അല്ലെങ്കിൽ കൈയ്യിൽ നിന്നു പോകും എന്നതാണ് ഇതിൻ്റെയൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം പക്ഷെ ഈ കൈയ്യിൽ നിന്നു പോകുന്ന സമയത്ത് എന്താ ചെയ്യുക ഇപ്പോൾ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ചു പൈസ കരുതി വെക്കുക അതേപോലെ കൈയ്യിൽ കുറച്ചു പൈസ കരുതി വെക്കുക ആ സമയത്ത് ഇടയ്ക്ക് എവിടെയെങ്കിലും ആ പൈസ ആ കൈയ്യിലുള്ള പൈസ തീർന്നു പോയാലും ബാങ്കിലുള്ള പൈസ അത് ആ ഒരു ഡിജിറ്റൽ പെയ്മെൻറ് എന്ന രീതിയിൽ കൈയ്യിൽ ഇരിക്കും അപ്പോൾ അടുത്തുള്ള ആൾക്കാരോട് ഏതെങ്കിലും ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ആ പൈസ ആ അവരെ കൈയ്യിൽ നിന്നു മേടിക്കുക അവർക്ക് പൈസ നമ്മുടെ മൊബൈൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരുടെ കൈയ്യിൽ നിന്ന് ആ ആ എന്താ പറയുക ആ റിയൽ മണി ആ ലിക്വിഡ് മണി എടുക്കുക എന്നതാണ് അതിൻ്റെയൊരു പ്രധാന കാര്യം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ പ്രശ്നം തരണം ചെയ്യാം പിന്നെയുള്ള പ്രശ്നമാണ് ഫുഡ് അതായത് പ്രധാനമായിട്ട് പോകുന്ന സ്ഥലത്തേ കിട്ടുന്ന ആഹാരം അത് ചിലപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്തും പിന്നെ പോകുന്ന സമയത്ത് ആ പോകുന്ന സ്ഥലത്തേലുള്ള ആ ഒരു ആ പ്രകൃതിയുടെ ഒരു വ്യത്യാസമുണ്ടാകും ആ ഒരു എന്താ പറയുക എൻവിറോണ്മെൻറ് ചേഞ്ചുണ്ടാകും അപ്പോൾ ആ സമയത്ത് അതിനെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നു വെച്ചാൽ എന്താ പറയുക ആ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ലിമിറ്റഡായിട്ട് ഒരു ലിമിറ്റിൽ ഫുഡ് കൺസ്യൂം അല്ലെങ്കിൽ ആഹാരം കഴിക്കാം എന്നതാണ് ഇല്ലെങ്കിൽ അത് ദേഹപ്രകൃതിയോട് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ആരോഗ്യം തന്നെ ഇടങ്ങേറാക്കും അതാണ് പറയാനുള്ളത് പിന്നെ അതെല്ലാം കൃത്യമായിട്ട് മൈൻറ്റൈൻ ചെയ്യുകയെന്നു വെച്ചാൽ ശരിക്കും ആഹാരം സമയത്തിനു ശരിയായിട്ടു തിന്നുക പിന്നെ ഉറക്കമാണ് പിന്നെയും പറയുന്ന പ്രധാന കാര്യം ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥല സമയത്ത് നമ്മൾക്ക് ശരിക്കും ഉറക്കം കിട്ടും പക്ഷെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്താൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടാകും അതെന്താണെന്നു വെച്ചാൽ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കുള്ള എൻവിറോണ്മെൻറ് സെറ്റായിട്ട് മറ്റൊരു സ്ഥലത്തേക്കു പോകുമ്പോൾ നമ്മൾ ഒരു നമ്മളെ ഒരു റെസിസ്റ്റു ചെയ്യും നമ്മളുടെ ബോഡി റെസിസ്റ് ചെയ്യും ആ സമയത്ത് ശരിക്കും ഉറക്കം കിട്ടാതെ നിൽക്കുന്നൊരു ടെൻഡൻസി ഉറക്കം കിട്ടാതെ നിൽക്കുന്നൊരു സാദ്ധ്യത ഭയങ്കരമാണ് അതേപോലെയുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് ആരോഗ്യത്തിൽ നല്ലൊരു രീതിയിലുള്ള വ്യത്യാസവും ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലുള്ള വെള്ളം കുടിക്കും വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അതേപോലെ പുറത്തു നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജലദോഷം ചുമ തൊണ്ടവേദന അങ്ങനെ പല പല കാരണങ്ങൾ പല പല രോഗങ്ങൾ വരാനും സാദ്ധ്യതയുണ്ട് എന്നതാണ് ഇതിൻ്റെയൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതേപോലെ ഇപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു ഉറക്കം അതേപോലെ ആഹാരം അല്ലെങ്കിൽ അതേപോലെ പോകുന്ന സ്ഥലത്തേ കുറച്ചൊരു ധാരണയില്ലാത്തത് ഏത് സ്ഥലമാണ് എങ്ങനെയാണു പോകേണ്ടത് അതേപോലെ ആ ടൈം റ്റു ടൈം ട്രാവൽ ചെയ്യാൻ വണ്ടീൻ്റെ സൗകര്യമുണ്ടോ അതേപോലെ അതേപോലെ അതു നമ്മൾ പോകുന്ന സമയത്താണ് അതേപോലെ നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയിൽ പോകുന്ന സമയത്ത് എത്ര പെട്രോൾ വേണം കൈയ്യിൽ എത്ര പെട്രോൾ ആ എങ്ങനെ ആ വണ്ടിയിൽ ഉണ്ടാകണം അതേപോലെ എന്താ പറയുക അത് ഏത് സമയത്താണ് തീരുന്നത് അതിനെക്കുറിച്ചും ഒരു ഇതു വേണം പിന്നെ എവിടെയൊക്കെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പെട്രോളുണ്ട് എന്ന കാര്യം അതിനെ കുറിച്ചൊരു ധാരണയില്ലാത്തത് അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് അതേപോലെ പറയുന്നെങ്കിൽ അതെല്ലാം എങ്ങനെ തരണം ചെയ്യുമെന്നു വെച്ചാൽ ആ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് കൃത്യമായിട്ട് പഠിക്കാം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഏതു സമയത്ത് എപ്പോഴാണ് യാത്ര തുടങ്ങുന്നത് അതിനെക്കുറിച്ച് നോക്കുക അതേപോലെ കൈയ്യിൽ കുറച്ച് പൈസ കരുതി വെക്കുക അതേപോലെ ഡിജിറ്റൽ മണിയായിട്ട് കുറച്ചു പൈസ കരുതിവെക്കുക അതേപോലെ എവിടെയൊക്കെ ഏതൊക്കെ ഫുഡാണ് കിട്ടുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുക അതേപോലെ നോക്കുന്നതാണെങ്കിൽ ഏതു ഫുഡ് ആണ് നമ്മളുടെ ആ ശരീരത്തിനു പിടിയ്ക്കാത്തത് എന്താണ് ശരിക്കും അറിഞ്ഞ ശേഷം പിന്നെ ഏത് ഫുഡാണ് എടുക്കേണ്ടത് എന്നു കുറച്ചു നമ്മൾ ആലോചിക്കുക അതാണ് ഇതിലെ പ്രധാനകാര്യങ്ങൾ